ആ കേള്ക്കാമോ ഞാൻ ഷെഫിനായിരുന്നു കാർപെൻഡർ

ഈ തേക്കിൻ്റെ ഈ കസേരയും മറ്റേ ഡൈനിങ്ങ് ടേബിളും മറ്റേ ഈ സോഫ പോലത്തെയൊരു അതൊക്കെ സംഭവമൊക്കെ എങ്ങനെയായിരുന്നു ഉം ഓക്കേ ഫണ്ട് ഒരു ഇഷ്യു അല്ല നമുക്ക് വരുന്ന സാധനം നല്ല ക്വാളിറ്റിയുള്ളതായിരിക്കണം

ഉം ആ ഓക്കേ ഓക്കേ പിന്നെ ഈ ഡൈനിങ്ങ് ടേബിള് അതിന്റെ ചെയറൊക്കെ അതിനൊരു എത്ര പെയറായിട്ടുള്ളതാണ് ചെയറൊക്കെ എത്ര സെറ്റായിട്ടുള്ളതാണ് അത് ആ ഓക്കേ ആ ഓക്കേ നിങ്ങള്ക്ക് വേറെ ഐറ്റംസ് വല്ലതുമുണ്ടോ ഇങ്ങനെ ഈ തടികൊണ്ടുള്ളത് ഉം ഓക്കെ ആ നിങ്ങളീ സംഭവങ്ങള് എനിക്കൊന്നു വാട്സപ്പ് ചെയ്തേക്കണേ ഇപ്പോള് പ്രൊഡക്ടിൻ്റെയൊക്കെ ഫോട്ടോസ് വല്ലതുമുണ്ടെങ്കില് വാട്സപ്പൊന്നു ചെയ്യണം ആ ഓ ഓ ഇപ്പം നമുക്കിപ്പോള് വേണ്ടത് ഡൈനിങ്ങ് ടേബിളും അതിൻ്റെ സെറ്റും വേണം

ആ ഓക്കേ ഓ മ് ഡൈനിങ്ങ് ടേബിള് ഒരു സെറ്റ് വേണം ഒരു ഒരു മീഡിയം സൈസ് ഒരു ഒരു ഒരാറ് മൊത്തം ടോട്ടലൊരു എട്ട് ചെയേഴ്സ് അതിന് ചുറ്റും ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉം പിന്നൊരു സോഫ സെറ്റ് വേണം അത് അത്യാവശ്യം വലുതായിക്കോട്ടെ അത് ഈ മറ്റേ ഈ ഹാളിലൊക്കെ ഇടുന്നൊരു കോണിലായിട്ടിടുന്ന ഒരു ടൈപ്പ് സെറ്റ് അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു ടേബിളിട്ടാലും കുഴപ്പമില്ല ആ ഒരു സെറ്റപ്പുണ്ടെങ്കില് നല്ലതാണ് കുഷ്യനായിട്ട് ആ കുഷ്യൻ വെച്ചേക്കൂ ഒരു അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം തന്നെ വെച്ചേക്കൂ ഒരു ക്രീം കളര് മതി ഒത്തിരി വെള്ള വൈറ്റ് വേണ്ട ഒരു ക്രീം കളറായിട്ടുള്ള സംഭവം മതി പിന്നെ എക്സ്ട്രാ ഒരു നാല് ചെയേഴ്സും കൂടെ വേണം അത് നമുക്കൊരു ഒരു റൂമില്ക്കൂടെ ഇടാൻ ആ റൂമിലിടാൻ തടി തന്നെ വെച്ചേക്കൂ

പിന്നെ നമുക്ക് ഒരു മൂന്ന് തടികൊണ്ടുള്ള കട്ടിലുംകൂടെ വേണമായിരുന്നു സെപ്പറേറ്റായിട്ട് വല്ലതും മതി ആ ഒരു മീഡിയം ആ മീഡിയം സൈസൊക്കെ മതി ആ അത് ഞാൻ വാട്സപ്പിട്ടേക്കാം വേറെയൊന്നും വേണ്ട ഇത്ര മതി ആഹ് ആ ഓക്കേ ഓക്കേ വേറെ ആ ഓക്കേ സാർ ഓക്കേ വേറെയൊന്നുമില്ല ഞാന് വിളിച്ചേക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കില് കേട്ടോ ആ ഓ ഓക്കേ ഓക്കേ